തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ പൂരം തന്നെയാണ് പാറമേക്കാവും വടക്കും നാഥനും മുഖത്തോട് മുഖം ചേർന്ന് നിന്ന് ഉത്സവമാണ് പൂരമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് വളരെ ഒരു പ്രത്യേകതരമായൊരു ഉത്സവം തന്നെയാണ് അതുപോലെ തന്നെ മറ്റൊരുതാണ് നമ്മുടെ വടക്കും നാഥന് ചുറ്റും ഉള്ളൊരു റൗണ്ടെന്ന് പറയുന്നത് അത് വേറൊരു ജില്ലകളിലും നമുക്ക് അങ്ങനത്തൊരു പ്രത്യേകത കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമാർന്ന ബിസ്സിനെസ്സം കാര്യങ്ങളും തൃശ്ശൂർ നിന്നിട്ടാണ് വളർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ജില്ലയിലെ ഒരു സ്ഥലങ്ങളും വളരെയേറെ പ്രത്യേകതയാണ് മലകളും പുഴകളും ഒക്കെ ചേർന്നൊര് ജില്ലയാണ് തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത് ഇവിടെ ഉള്ള വടക്കും നാഥൻ എന്ന് വെച്ചാൽ ഒരു മത സൗഹാർദ്ദം തന്നെയാണ് തൃശ്ശൂർ ജില്ലയിൽ കാണാൻ പറ്റും ഇപ്പം മലപ്പുറമായാലും കൂടുതലായിട്ട് മുസ്ലിംസ് ആയിരിക്കും ഇപ്പോൾ കോഴിക്കോടാണെങ്കിലുമങ്ങനെ തന്നെയാണ് പക്ഷേ തൃശ്ശൂർ എന്ന് പറയുന്നത് മുസ്ലിമുകളായാലും ക്രിസ്ത്യൻസായാലും ഹിന്ദുക്കളായാലും അങ്ങനെ ഒരു മതം ഇതുവല്ല ഞാൻ പറയുന്നത് എല്ലാവരും സമാധാനത്തോടെയും നടക്കുന്ന സ്ഥലം തന്നെയാണ് ജില്ല ജില്ല തന്നെയാണ് തൃശ്ശൂരെന്ന് പറയുന്നത് ഇവിടുത്തെ ഉള്ളൊരു പുത്തൻ പള്ളിയാണെങ്കിലും വടക്കുംനാഥൻ പാറമേക്കാവ് പിന്നെ ഒട്ടനവധി കുറെ കൊടുങ്ങല്ലൂര് തൃശ്ശൂരെന്നല്ല മറ്റ് സ്ഥലങ്ങളിലും വളരെ പ്രധാനമാർന്ന പള്ളികളും അമ്പലങ്ങളും ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട് വളരെ പ്രാചീനമാർന്ന കുറെ മ്യൂസിയം ലളിതകല അക്കാഡമി എല്ലാം തൃശ്ശൂർ തന്നെയാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാ സ്ഥലസ്ഥ തലസ്ഥാനമെന്ന് പറയുന്നത് തൃശ്ശൂര് തന്നെയാണത് അതുകൊണ്ട് തന്നെ സാംസ്കാരികമായും കലാ കലാകാരമായും കലാകാരകമായും കുറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത് ഇപ്പഴും സാംസ്കാരികം സംസ്കാരം ഇഴ ഇടചേർന്ന് നിൽക്കുന്നൊരു ജില്ല തന്നെയാണ് തൃശ്ശൂരെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇവിടെ ഉള്ളവർക്ക് കലയും സംസ്കാരവും എന്നും എപ്പഴും പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ പൂരത്തിന് എത്രത്തോളം നെഞ്ചിലേറ്റിയവർ ഉത്സവം കൊണ്ടാടുന്നത് അത് മറ്റൊരു ജില്ലയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല ഇപ്പോൾ ഇവിടെ തന്നെയല്ല ഏതൊരു രീതിയിലാണെങ്കിലും ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ ഇപ്പം നമ്മള് പറയുകയാണെങ്കിൽ തൃശ്ശൂർ പൂരം മുതൽ ഇവിടെ നടക്കുന്ന പള്ളിപ്പെരുന്നാള് വരെ ഒരു മത സൗഹാർദ്ദത്തിലൂടെയാണ് പോകുന്നത് ഇപ്പോൾ കൊടുങ്ങല്ലൂര് ഭരണി പിന്നെ നമ്മുടെ ചോറൂട്ട് ചോറൂണ് പിന്നെ ആനയൂട്ട് ഗുരുവായൂര് പിന്നെ നമ്മുടെ പാമ്പുമേക്കാട്ട് മന പല അധികം പൈതൃകമാർന്ന കുറെ അമ്പലങ്ങളും കാര്യങ്ങളുമുള്ള ഒരു ജില്ല തന്നെയാണ് തൃശ്ശൂര് എന്നും എപ്പോഴും സാംസ്കാരിക തലസ്ഥാനം എന്നും എപ്പോഴും കുടുമുടിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ തൃശ്ശൂർ ജില്ല കേരളത്തിൻ്റെ ഇപ്പോഴും എന്നത്തേക്കുമായിട്ടുള്ള ഒരു സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ